നമ്മുടെ സമൂഹത്തില് നമ്മളെ ആളുകളെ സംരക്ഷിക്കാനും സമാധാനം നിലനിർത്താനും വേണ്ടി നമ്മള് ചെയ്യേണ്ടതെന്ന് പറയണത് ഒരു നിയമത്തില് വലിയൊരു അഴിച്ചുപണിതന്നെ നമ്മള് ചെയ്യണം കാരണം ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയെന്ന് പറയണത് നമ്മളിപ്പോൾ ആര് കൊന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല നമുക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോരാമെന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങള് കൂടി വരുന്നത് അപ്പോൾ ഒരു ഒരു തെറ്റുചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ തക്കതായ ശിക്ഷകള് നമ്മള് വിധിക്കുമ്പോഴാണ് ആളുകൾക്കൊരു പേടി ഉണ്ടാവുള്ളൂ ഇനി അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താല് ഇനി ശിക്ഷകിട്ടും എന്നുള്ളൊരു അവേർനെസ്സ് ആളുകളിൽ ഉണ്ടാവണം അപ്പോൾ ഈ താനേ ഈ കുറ്റകൃത്യങ്ങൾ കുറയുമെന്നാണ് എൻ്റെയൊരു തോന്നല് പിന്നെ ഈ ഇപ്പോൾ കൂടുതലും ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങള് കാണുമ്പോള് കാരണം നമ്മള് ഓരോ വാർത്തകള് കേൾക്കാറുണ്ട് അതായത് ഈ റെയ്പ്പ് ചെയ്ത് കൊല്ലുക എന്നൊക്കെപ്പറയ ബലാത്സംഗത്തിന് ഇരയാവുകയെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ലൊരു തക്കതായ ശിക്ഷ ഇവിടെയില്ലാത്തത്കൊണ്ടാണ് ആളുകളിത് സ്ഥിരമാക്കിക്കൊണ്ട് പോകുന്നത് തക്കതായൊരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ കൂടുതല് ഇത് കുറയ്ക്കാനുള്ളൊരു നമുക്ക് പറ്റും അപ്പോൾ അതിന് നമ്മുടെ ഗവൺമെന്റ് തന്നെ മുന്നോട്ടിറങ്ങണം എന്നിട്ടൊരു വേണ്ടതായ കാര്യങ്ങള് ചെയ്താലാണ് നമ്മുട നാട്ടില് സമാധാനവും നമ്മുടെ ആളുകൾക്കൊരു സംരക്ഷണവും കൊടുക്കാൻ പറ്റുള്ളൂ